ഗുഡ് മോർണിംഗ് ഞാൻ പാട്ടിനെക്കുറിച്ച് അത് ആ പാട്ടിൻ്റെ ഇൻട്രസ്റ്റിനെക്കുറിച്ച് എനിക്കെങ്ങനെയാണ് പാടാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത് ഇതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ ഫാദറ് ഒരു അദ്ധ്യാപകനായിരുന്നു പക്ഷേ അദ്ധ്യാപകൻ മാത്രമല്ല നല്ലൊരു കലാകാരനായിരുന്നു എൻ്റെ ഫാദറിന് തൻ്റെ മക്കൾക്ക് കിട്ടിയ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതില് വളരെ ശ്രദ്ധ ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഫാദറും മദറും ഒക്കെ ഒരുവിധം പാടുന്നവരാട്ടോ അങ്ങനെയിരിക്കേ മൂത്ത രണ്ട് ചേച്ചിമാരെ അപ്പച്ചൻ ഇതുപോലെ പാടാനായിട്ട് ഉള്ള കഴിവ് വർധിപ്പിക്കാൻ വേണ്ടി വീട്ടില് ഒരു പിന്നെ ഭാഗവതരെ കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിക്കാനാണ് തുടങ്ങിയത് അപ്പോൾ അന്നെനിക്ക് വയസ്സ് എനിക്ക് തോന്നുന്നു ഞാനൊന്നിലോ രണ്ടിലോ പഠിക്കുന്ന കാലഘട്ടം അപ്പോൾ ഞങ്ങളുടെ വീട് ഒരുവിധം വലിയ വീടാണേ അപ്പം നാട്ടില് ഭാഗവതരെ കിട്ടാഞ്ഞിട്ട് എൻ്റെ അപ്പച്ചൻ തൊടുപുഴ സൈഡിൽ നിന്നെങ്ങാണ്ടോര് ഭാഗവതർനെ വിളിച്ച് ഞങ്ങളുടെ വീട്ട്ല് നിർത്തി അങ്ങനെയാണ് ഈ ചേച്ചിമാരെ പഠിപ്പിക്കാനാരംഭിച്ചത് അപ്പുറത്തെ രണ്ടാമത്തെ നിലയിൽ അവർക്കൊരു റൂമുണ്ട് ആ റൂമിലിരുത്തി ഇവരിങ്ങനെ സാരിഗമ പാടാൻ പാടുന്ന പാട്ട് ശാസ്ത്രീയസംഗീതമാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിന് മുമ്പ് വീട്ടിലെ തന്നെ ഹാർമോണിയം ഉണ്ട് ഗ്രാമഫോണുണ്ട് അങ്ങനെ പല ഇൻസ്ട്രുമെൻസും തന്നെ വീട്ടിലുണ്ട് അപ്പോൾ ഇവരുടെ ആ പാട്ടില്ലേ അതായത് ഇവര് ഞങ്ങള് ചെറ്പ്പത്തിൽ കേൾക്കുന്നത് ഈ പാട്ടാണ് അപ്പോൾ ഞങ്ങള് ഇതുപോലെത്തന്നെ ഇതിൻ്റെ സ്വരങ്ങളെല്ലാം ചിലപ്പം ഞങ്ങളവിടെ പോകുന്നത് ആശാന് ഇഷ്ടം ഇല്ല ആശാൻ പറയും എന്തെങ്കിലും കാരണം പറഞ്ഞ് ദേ അവിടെ കോഴി കൂവുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് മാറ്റും കാരണം ശ്രദ്ധ അവരുടെ ശ്രദ്ധ കളയാതിരിക്കാൻ എങ്കിലും ഈ പാട്ടിൻ്റെ അലയടികള് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അങ്ങനെ മനസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം അതാണ് ഞങ്ങള് പിറന്ന അല്ലെങ്കിൽ ചെറുപ്പം മുതല് ഞങ്ങൾ കേൾക്ക്ന്നത് ഈ സംഗീത ആരവമാണ് ഞങ്ങളുടെ വീട്ടില് അതെല്ലാം കഴിഞ്ഞേച്ച് ചേച്ചിമാര് ഒരുവിധമൊക്കെ പഠിച്ചു കെട്ടോ അപ്പോൾ ആ പാട്ടുകൾ ഞങ്ങള് മൂളാൻ തുടങ്ങി ശാസ്ത്രീയ സംഗീതമാണെങ്കിലും ഒക്കെ ഞങ്ങള് മൂളാൻ തുടങ്ങി അങ്ങനെ കിട്ടിയതാണ് ആദ്യത്തെ സമ്പത്ത് അങ്ങനെ ഞങ്ങളെ ഈ ചേച്ചിമാര് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടില് പതിമൂന്ന് മക്കളാണേ ആ പതിമൂന്ന് മക്കളും ക്രിസ്തീയ ആത്മികതയിൽ ഒത്തിരി വളർച്ചയുള്ളവരാണ് അപ്പം ഞങ്ങളുടെ പള്ളികളിൽ ആണെങ്കിലും ഇഷ്ടംപോലെ പരിപാടികള് സൊഡാൽറ്റി ആനിവേഴ്സറി അതുപോലെ പലപല പരിപാടികളുണ്ട് അതുപോലെ സ്കൂളിലാണെങ്കിലും മത്സരങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെന്നാ ചെയ്യും ഡാൻസിനും പാട്ടിനു ഒക്കെ ഞങ്ങളെ ചേർക്കും എന്നിട്ട് ഞങ്ങളെ പാടിപ്പിക്കും അപ്പോൾ ചെറുപ്പം മുതലേ ഇപ്പം ഈ സൊഡാൽറ്റി അല്ലെങ്കിലെങ്ങനെ ഉള്ള പരിപാടികളുള്ള ഇപ്പം ഞങ്ങളവിടപോയി പാടാനായിട്ട് ചേച്ചിമാര് പഠിപ്പിച്ച് തരും ഞങ്ങളത് പാടും ഇങ്ങനെയാണ് ഞങ്ങള് പടനായിട്ട് ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അത് ഞങ്ങളുടെ അപ്പച്ചൻ തന്നെയാണ് ആദ്യം ഞങ്ങൾക്ക് ഇതിനുള്ള കഴിവിനെ വർധിപ്പിക്കാനായിട്ട് പുള്ളിയുടെ ആ തീരുമാനമാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് കാരണം പിന്നെ അതുപോലതന്നെ ഞങ്ങള് കുടുംബപ്രാർത്ഥനയിൽ ഒര് ഏകദേശം ഒരു മണിക്കൂറോളം പ്രാർഥനയുണ്ട്

അതൊക്കെ മക്കൾക്കുണ്ടാകാതിരിക്കുമോ അങ്ങനെയാണ് ആ കഴിവ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഏത് പരിപാടിക്കും ഇപ്പം വിശുദ്ധകുർബാനയില് ഞങ്ങള് ചെറുപ്പം മുതലേ തന്നെ പള്ളിയിൽ പാടാനായിട്ട് ഞങ്ങളെ വിളിക്കും കാരണം എന്നാൽ മൂത്തവരിൽ നിന്ന് കിട്ടിയ ആ പിന്തുടർച്ചാവകാശം എന്ന് പറഞ്ഞാൽ മൂത്തവര് പാടുന്നതിൻ്റെകൂടെ ഞങ്ങളെ നിർത്തും അതുപോലെതന്നെ ഞങ്ങളുടെ വീട്ട്ല് ഒര്ചെറിയ റേഡിയോ വന്നായിരുന്നേ ആ റേഡിയോയില് പാട്ടൊക്കെ വെക്കുമ്പോഴ് ആ പാട്ടുകളൊക്കെ ചിലര് നാല് വരി പഠിച്ചെങ്കിൽ അടുത്ത നാല് വരി മറ്റെ ആൾ പഠിക്കും അങ്ങനെ പാട്ടുകളിങ്ങനെ പഠിക്കുന്നതിൽ ഭയങ്കര താത്പര്യം ഉണ്ടായിരുന്നു അതുപോലെതന്നെ സ്കൂൾ ആനിവേഴ്സറി അത്പോലെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഇതിനെല്ലാം ഞങ്ങളെ കയറ്റും ഞങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും അപ്പം എൻ്റെപ്പനെ എല്ലാവരും വിളിച്ചിരുന്നത് ജോൺമാഷ് അപ്പം ഏത് മത്സരങ്ങളുണ്ടെങ്കിലും ജോൺമാഷുടെ മക്കൾക്കാണ് കൂട്തല് സമ്മാനം കിട്ടുന്നത് അതുപോലതന്നെ ഓരോ പരിപാടിക്കും ഞങ്ങളെ വളർത്താനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പച്ചൻ കാരണം അപ്പച്ചൻ തൃശിനാപള്ളീയിലാണ് പഠിച്ചതൊക്കെ അപ്പം അവിടെ നിന്ന് കിട്ടിയ കോച്ചിങ്ങൊക്കെ അപ്പൻ്റെ ജീവിതത്തില് ഒത്തിരി ഒത്തിരി ഇൻഫ്ലുവൻസ് ക്കെ നേടിയായിരുന്നു അതുകൊണ്ടാണ് മക്കൾക്കൊക്കെ വളരേ നല്ല ഒര് ബിഹേവിയറ് അതായത് ഞങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നില് എങ്ങനെയാണ് നമ്മള് നിൽക്കേണ്ടത് അങ്ങനെയൊക്കെയ്ള്ള നല്ലനല്ല ശീലങ്ങളൊക്കെ എൻ്റെ അപ്പച്ചൻ എന്താന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഈ അപ്പച്ചന് ഞങ്ങള് പാടുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്ററസ്റ്റ് ആണ് ഞങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഇന്നും ആ പാട്ടിൽ നിന്ന് എനിക്ക് പിന്മാറാനായിട്ട് ദൈവ അനുവദിച്ചില്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പഴും പള്ളീല് പാട്ട്കാരില്ലേൽ ഞാൻ പാടും അതുപോലെ കൊയർലൊക്കെ ഞാൻ നന്നായിട്ട് പാടുവായിരുന്നു ഇപ്പം ഇപ്പം ഈ പിലിക്കിരിനാട്ടി വന്നിട്ടും ചിലപ്പോൾ ദേവാലയങ്ങളില് പ്രാർത്ഥനാ അല്ലെങ്കില് പാട്ടുകാരില്ലെങ്കിൽ ഞാൻ മൈക്കിൽ കൂടെ പാടും അപ്പോൾ എല്ലാജനങ്ങളും പറയും മദറിൻ്റെ പാട്ട് നല്ലതാണല്ലോ നല്ല രസമുണ്ട് കേൾക്കാൻ മദറിത്രയും പ്രായത്തില് ഇത്രയും പാടുന്നുണ്ടല്ലോന്ന് അപ്പം അയി അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ആ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സഹോദരങ്ങള് അതുപോലതന്നെ അയൽവാസികള് ഫാദർ അച്ഛന്മാര് അതുപോലെ സിസ്റ്റേഴ്സ് ഒക്കെയാണേ ഇതിൻ്റെ പിൻ പിൻനിരയിൽ നിന്നുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഇന്ന് ഞാൻ പാട്ടിനോട് വളരെ സന്തോഷവാണ്